സാങ്കേതിക വിദ്യയുടെ പുരോഗതി നിങ്ങ എന്റെ ജീവിതത്തില് വരുത്തിയ മാറ്റങ്ങളെന്തക്കെയാണെന്ന് നോക്ക്കയാണെങ്കിൽ സാങ്കേതികവിദ്യ വന്നതോടുകൂടിയാ എന്റെ ജീവിതം ഒന്നും കൂടെ എളുപ്പമായി ഉദാഹരണം പറയുകയാണങ്കില് എന്റെ കൈ ഇരിക്കുന്ന ഫോണ് വഴി തന്നെ ഇപ്പം സാങ്കേതികവിദ്യ വന്ന് കഴിഞ്ഞതില് ഏതൊരു വ്യക്തിയേം എനിക്കെളുപ്പത്തിത്തന്നെ വിവരം അറിയിക്കുവാനും അദ്ദേഹവുമായിട്ട് കണക്റ്റെയ്യാനും അദ്ദേഹവായിട്ടെന്തേലും കാര്യങ്ങള് പറയുവാനാണേലും എനിക്ക് സാങ്കേതികവിദ്യ വഴി നടക്കാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സാങ്കേതികവിദ്യ എന്ന് പറയ്ന്നത് വളരെയധികം എന്നെ ഹെല്പ് ചെയ്തിട്ടൊള്ള ഒരിതാണ് പിന്നെ എന്തൊക്കെ ആ ആവിശ്യങ്ങള്ക്കാണ് നിങ്ങള് സ്മാര്ട്ട്ഫോണ് അല്ലെങ്കില് ഇന്റര്നെറ്റ് ഉപയോഗിക്കാ എന്ന് പറയ്ന്നതാ ആ ഇന്റര്നെറ്റ് വലിയൊരു ഇതാണ് എനിക്ക് ഇന്റനെറ്റ് വഴി ഏതൊരു കാത്യങ്ങള് ഏതൊരു കാര്യങ്ങള് അറിയുവാനും എന്തൊരു കാര്യങ്ങള് ഷെയറ് ചെയ്യുവാണേ എന്തൊരു കാര്യങ്ങള് സൂക്ഷിച്ച് വെക്കുവാനും എന്റെ അറിവ് അല്ലെങ്കില് എന്റെ കഴിവ്കളെനിക്ക് കൂട്ടുവാനും ഒക്കെ സാങ്കേതികവിദ്യ എന്നെ സഹായിക്കുന്നൊണ്ട് പിന്നീട് പറയുവാണെങ്കില് സാങ്കേതികവിദ്യയെ കുറിച്ച് പി ഇന്നത്തെക്കാലത്ത് സാങ്കേതികവിദ്യ വന്നുകൊണ്ട് തന്നെ സാങ്കേതികവിദ്യ വന്ന കൊണ്ട് തന്നെ തന്നെ ഇപ്പം വഴി നിക്ക്മ്പം വഴി നിക്ക്മ്പം ഗൂഗിള്മാപ്പ് ഗൂഗിള് മാപ്പ് ഇപ്പ എനിക്കൊരു വഴി അറിയില്ലാ ഗൂഗിള് മാപ്പിലെനിക്ക് അന്വേഷിച്ച് കൊണ്ട് തന്നെ സ്ഫോണ് വഴി എനിക്ക് ഗൂഗിള് മാപ്പിൽ എനിക്കേതൊരു സ്ഥലത്തേക്കും എത്തിച്ചേരാന് സാധിക്കും അത്കൊണ്ട് തന്നെ സ്പാര്ട്ട്മോണ് അല്ലേൽ എൻ്റെയൊരു സാങ്കേതികവിദ്യ എളുപ്പമാക്കിയ കാര്യം പിന്നെ ടിക്കറ്റ്കള് ടിക്കറ്റ്കള് അതായതിപ്പ ഈ ഹോട്ടലി ചെല്ലുവാണെങ്കില് എളുപ്പത്തി എനിക്ക് ടിക്കറ്റ് കിട്ടാന് ഏറ്റോം എളുപ്പവൊള്ള സാങ്കേതികവിദ്യ വന്നത് കൊണ്ടാണ് പിന്നെ ഹോട്ടല്കൾല് ബുക്ക് ചെയ്യുക ബുക്കെയ്യ്മ്പം സ്മാര്ട്ട്ഫോണ് വഴി എനിക്കേറ്റം പെട്ടന്ന് തന്നെ ബുക്ക് ചെയ്യാന് പറ്റും ഈ സ്മാര്ട്ട് ഫോണില് എനിക്ക് എനിക്ക് അവിടെ ചെന്ന് അല്ലെങ്കില് ആ ഒരു സമയത്ത് നമ്മള് ബുക്ക് ചെയ്യാതെ ഇര്ന്നാ അവിടെ റൂമല്ലെങ്കില് ആ ആവൈലബിലിറ്റി കാണണം എന്നില്ല പക്ഷെ എനിക്ക് സ്ഫോണ് വഴി പെട്ടന്ന് തന്നെ അല്ലെങ്കി എനിക്ക് ഏറ്റോം പെട്ടന്ന് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാന് വരും പിന്നെ ഗൂഗിള്പേ ഗൂഗിള്പേ വഴി എനിക്ക് ഏതൊരു പണം എടപാടുകളും എളുപ്പത്തി എന്ന പരിമിതി വെച്ച് ആണ് എന്നെ ഇത് നടത്തുവാന് സാധിക്കും പിന്നെ ബാങ്കിംഗ് ബാങ്കിംഗ് വഴി എനിക്ക് ഫോണ് വഴി തന്നെ പൈസ നിഷേപിക്കുവാനും എടുക്കുവാനും ഒക്കെ ബാങ്കിംഗ് തന്നെ സാങ്കേതികവിദ്യ വളര്ന്ന കൊണ്ട് തന്നെ എന്നെ സഹായിക്കും പിന്നെ ഷോപ്പിംഗ് ചെയ്യുവാൻ എനിക്ക് സ്മാര്ട്ട് ഫോണവഴി എനിക്ക് ആമസോണ് അല്ലെങ്കി ഫ്ലിപ്പ്കാര്ട്ട് വഴി ഏതൊരു വസ്തൂം വീട്ടി ഇരുന്ന് കൊണ്ട് തന്നെ അതായത് പൊറത്ത് പോയി എനിക്ക് ചെയ്യാതെ സ്പാര്ട്ട് ഫോണ് വഴി എനിക്ക് ചെയ്യുവാന് സാധിക്കും അത്കൊണ്ടക്കെ തന്നെയാണ് എനിക്ക് സാങ്കേതികവിദ്യ വന്നോണ്ട് തന്നെ എളുപ്പത്തില് കാര്യങ്ങള് എന്റെ ജീവിതം ഒന്നും കൂടെ മാ എളുപ്പത്തില് ആക്കിയെന്ന് പറയാന് കാരണം പിന്നെ എഐ എക്കെ വളര്ന്നതോട് കൂടിത്തന്നെ എനിക്കിപ്പോ ക്ലാസില് എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കില് വര്ക്കക്കെ ചെയ്യണെങ്കില് എഐയോട് ഒരു സഹായത്തോട് തന്നെ എനിക്ക് ചെയ്യാന് സാധിക്കും അപ്പം അത്കൊണ്ടൊക്കെ തന്നെ സാങ്കേതികവിദ്യയുടെ വളര്ച്ചയെന്ത് പറയ്ന്നത് എന്നെ ഒതു ഒട്ടനവ് കാര്യങ്ങൾലെന്നെ സഹായിച്ചിട്ടൊള്ള കാര്യമാണ് ഇപ്പം സാ ക്ലാസ്സി വന്നു ടീച്ചര്നൊരു ടോപ്പിക്ക് എനിക്ക് എട്ത്തു തരാന് പറയുവാണെങ്കില് എനിക്ക് പെട്ടന്ന് തന്നെ മെറ്റേലോ ചാറ്റ് ജിപ്പിറ്റിലോ എനിക്ക് കാര്യങ്ങള് ഉപയോഗിച്ച് അതായത് ഇപ്പൊ ഫോണിത്തന്നെ ടൈപ്പ് ചെയ്തു കൊണ്ട് തന്നെ എനിക്കാ ഡൗട്ട് തീര്ക്കുവാന് സാധിക്കും സൊ അതുകൊണ്ട് തന്നെ സാങ്കേതികവിദ്യയെന്ന് പറയ്ന്നത് എന്നെ ഒട്ടനേക കാര്യങ്ങളിൽ ഹെല്പ്പ് ചെയ്തിട്ടൊരു കാര്യമാണ് പിന്നീട് നോക്കുവാണെങ്കില് എനിക്കേതൊരു പ്രോജക്റ്റും എനിക്ക് എളുപ്പത്തിലെനിക്ക് സാ ഫോണ് വഴി എനിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കില് ലാപ്പ്ടോപ് വഴി എനിക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ എന്തേലൊരു കാര്യം എനിക്ക് ഓഡ്രറ് ചെയ്ത് എന്റെ വീട്ടിലേക്ക് വര്ത്താം എനിക്ക് പൊറത്തെല്ലോം ഒത്തിരി കഷ്പ്പാടിന്റെ ഒരു കാര്യം സാങ്കേതികവിദ്യ വളര്ന്ന കൊണ്ട് തന്നെ നമ്മക്ക് വര്ന്നില്ല സൊ ഇതെക്കെയാണ് എന്റെ കാര്യങ്ങള്ടെ സാങ്കേതികവിദ്യ കൊണ്ട് ഒട്ടനവധി മാറ്റങ്ങള് വരുന്നുവെന്ന് പറയാന് കാരണം സൊ സാങ്കേതികവിദ്യ എന്ന് പറയ്ന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്